ഹലോ കേക്ക് ഏതാണ് വേണ്ടത് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നേ സ്ട്രോബെറി ഉണ്ട് ആൽമണ്ട് ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് എത്ര കിലോ വേണം അതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു മൂന്ന് ലെയറായിട്ടുള്ളതാണ് മൂന്ന് എത്ര കിലോ ആണ് എത്ര കിലോ എന്ന് പറഞ്ഞ് അതിനനുസരിച്ച് നമുക്ക് ലെയർ ആ ഓക്കെ ഓക്കെ അപ്പോൾ ആ അത് അത് നിങ്ങൾക്ക് പറയണപോലെ നമുക്കത് ചെയ്യാം അപ്പോൾ നിങ്ങളെന്താണോ പറയണത് അതിനനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ വേണമെങ്കിൽ ഫോട്ടോ ഏഡ് ചെയ്യാം ആ ഓക്കെ ഓക്കെ ആ ആ അത് ചെയ്യാം എത്രയാണ് എത്രയാണ് എത്ര ആ ആ ഒരു രണ്ട് രണ്ടര വേണ്ടി വരും അപ്പോൾ ആ ആ അത് വേണ്ടിവരും അപ്പോഴൊരൂ അറുന്നൂറ് വരും കാരണം ഉള്ളിൽ നമുക്ക് ഇപ്പോൾ പണിയൊക്കെ നടക്കുമ്പോൾ പിന്നെ ഒര് ആ ഒരൂ ആയിരത്തിൻ്റെ താഴെതന്നെ ഒരു എണ്ണൂറ് വരും എണ്ണൂറ് എണ്ണൂറ്റമ്പത് അതെ കാരണം ഇത് സാധാരണ കേക്ക് സാധാരണ കേക്ക് ആണെങ്കിൽ കുഴപ്പമില്ല ഇതിൽ നിങ്ങൾ പറഞ്ഞപോലെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ ഏഡ് ചെയ്യാം പിന്നെ മൂന്ന് ലെയറ് വരും രണ്ട് രണ്ട് പറയുമ്പോൾ മൂന്ന് ലെയറ് വരും ആ ഇടയിൽ ഇടയിൽ ആ ഇടാം ഇടുന്നുണ്ട് ഇടുന്നിുണ്ട് ഇടയിലിടാം അപ്പോൾ അതിന് ആ ഉണ്ടാക്കിത്തരും ആ നിങ്ങൾക്ക് എങ്ങനെ ഏതാണ് റൗണ്ടാണോ സ്ക്വയറാണോ ഏതാണ് വേണ്ടത് പിന്നേ ഇത്ര ലെയറ് വേണം ആ ഒരു രണ്ട് രണ്ടര കിലോന്റെ അടുത്തായിട്ട് നമ്മൾ അതെന്തായാലും ഒക്കെ ആക്കിത്തരും നിങ്ങൾ പറയണ പോലെ നമ്മൾ ചെയ്തു തരും ആ ആ മനസ്സിലായി മനസ്സിലായി ആ ഓക്കെ അത് പക്ഷേ അത് ചെയ്യാൻ പറ്റും പക്ഷേ രണ്ടരേന്റെ മേലെ വരുമോ രണ്ടര മേലെ വരുമായിരിക്കും ചിലപ്പോൾ നോക്കാമത് ചിലപ്പോൾ ലെയറ് കുറക്കേണ്ടി വരും ആ കുഴപ്പമില്ല അല്ലേ ഓക്കെ എന്നാൽ എന്നാൽ ഓക്കെ ഒപ്പിക്കാമത് ഓക്കെ കേട്ടൊ ആ ആ റൗണ്ട് പിന്നെ മേലെ നമുക്ക് വേറെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചെയ്യണോ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ നട്ട്സ് നട്ട്സ് ആ ആ ഒക്കെ ആ ഓക്കെ ഓക്കെ നമുക്ക് വേറെയെന്തെങ്കിലും ഏഡ് ചെയ്യണോ വേറെ എന്തെങ്കിലും കുട്ടികളുടെ എന്തെങ്കിലും ടോയ്സോ അങ്ങനെയെയെന്തങ്കിലും പോലെ ഷെയ്ഡായിട്ട് ആ ആ അതെയതെ ആ അത് വെണമെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ ആ കൊടുക്കാമല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ എല്ലാ ഒരു ആയിരത്തിൽ വരുമപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവൻ എക്സ്ട്രാ പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒരു ആയിരത്തി ഒരുന്നൂറ് വരും

അഡ്വാൻസായിട്ട് ഒരഞ്ഞൂറ് തന്നാൽ മതി ആ പണി അത് ജസ്റ്റ് നമ്മൾ ചെയ്തു കയിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാമപ്പോൾ വീടിന്റെ ലൊക്കേഷനയച്ചാൽ മതി അപ്പോൾ ഞാനങ്ങനെ അവിടേക്കുതന്നെ കൊണ്ടുവരാം ആ ഓക്കെ ഓക്കെ എന്നാൽ ആ ഓക്കെ ആ ഒമ്പതരയാവുമ്പോഴേക്ക് ഞാൻ തന്നെ എത്തിക്കാം ഓക്കെ ഇപ്പോൾ ഞാനവിടെ പിള്ളേരുടെ അടുത്ത് പറയാം അവന്മാർ കൊണ്ടുവരും ഓക്കെ നിങ്ങൾ ലൊക്കേഷനയച്ചു വിട്ടാൽ മതി ആ ഇപ്പോൾത്തന്നെ അയച്ചോളൂ ഞങ്ങൾ ആ എന്നാൽപ്പിന്നെ അങ്ങനെ കൊണ്ടുവരാം ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ